നിങ്ങൾ വണ്ടി വർക്ക് ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ

ഇല്ല ഇല്ല അപ്പോൾ വണ്ടിക്ക് എന്നാ പ്രശ്നം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്

ആ അതെയാ പിന്നാ പെയിൻറ്റ് പോവാൻ എന്തെങ്കിലും പറ്റീനാ അതെയാ ആരടുത്തുനിന്ന് അതെയാ ആ അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം

അങ്ങനെ വണ്ടീൻ്റെ പുറം ഭാഗം ഇളകുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ നിങ്ങൾ തട്ടിയത് നല്ലോണം എന്തെങ്കിലും ആയിനോ

ആ ചിലപ്പോൾ പറയാൻ പറ്റില്ല ആ വണ്ടി ബേക്കിൽ വന്ന് തട്ടി അല്ലേ അപ്പോൾ അതിന് ചിലപ്പോൾ അതിൻ്റെ സൗണ്ട് ആണോയെന്ന് പറയാൻ പറ്റൂല്ല അതുകൊണ്ടാ ചോദിച്ചത് എങ്ങനെ എഞ്ചിൻ ഓയില് മാറ്റാൻ ആയിനോ ആ മാറ്റാം എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടിക്കൽ മാറ്റാം മാറ്റിക്കൂടെ ആ വണ്ടി എടുത്തിട്ട് എത്ര ആയി അതെയാ സർവീസ് എല്ലാം കഴിഞ്ഞതല്ലേ അടുത്ത കൊല്ലമോ ഓ അപ്പോൾ പിന്നെ എന്തായാലും പെയിൻറ്റിംഗ് എല്ലാം ചെയ്യണമല്ലോ അതുകൊണ്ടാ ചോദിച്ചത് അല്ല സർവീസ് ഇപ്പോൾ അടുത്തുണ്ടെങ്കിൽ വെറുതെ പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൈസ കളയണ്ടല്ലോയെന്ന് വെച്ചിട്ട് ചോദിച്ചതാണ് ഓ ആ ആ അപ്പോ പൈസ ഒരു അയ്യായിരം അങ്ങനെ വരും ഓക്കേ ഓക്കേ ഓക്കേ ചെയ്തിട്ട് വിളിക്കാം നിങ്ങള് ഓ